ട്രാൻസ്ലേറ്റ് ചെയ്ത് ചെയേണ്ടി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ട് അതായത് എൻ്റെ ഒരു ഫ്രണ്ട് പുറത്ത് നിന്നൊരു ബുക്ക് എനിക്ക് വേണ്ടി സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബുക്ക് വായിക്കാൻ വേണ്ടി ഞാൻ കുറെ കഷ്ടപ്പെട്ടു ബികോസ് അത് ഇംഗ്ലീഷിൽ ആയിരുന്നു എല്ലാം അപ്പോൾ അത് എനിക്ക് വായിച്ച് മനസിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ ഞാന് അതിൻ്റെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ചെയ്ത് അത് മനസ്സിലാക്കി അങ്ങനെയാണ് ഞാൻ അത് വായിച്ചതും കാര്യങ്ങളും അതിലുള്ള ഉള്ളടക്കം മനസിലാക്കിത് എല്ലാം അങ്ങനെ ആയിരുന്നു അതിനു വേണ്ടി ഞാൻ ഇത് ആത്യായിട്ട് യൂസ് ചെയ്തിരുന്നു അതുപോലെ തന്നെ ഞാൻ കടേല് കുറച്ചു സാധനം വാങ്ങാൻ വേണ്ടി പോയിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം അവിടെ ഉള്ളവര് അവിടെ ഉള്ള ആള് ഹിന്ദിക്കാരൻ ആയിരുന്നു അപ്പം അയാൾടെ അപ്പോൾ സാധനം മേടിക്കാൻ നേരത്ത് അയാളോട് ഇങ്ങനെ എന്താ വേണ്ടെന്നു പറയാനും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ആയിരുന്നു അപ്പോൾ ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റർല് ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്തിട്ടാണ് അയാളും ആയിട്ട് സംസാരിച്ചതും കാര്യങ്ങളും എല്ലാം അപ്പോൾ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെയാണ് അതിൽ നിന്നുണ്ടായ അനുഭവം എന്ന് പറഞ്ഞിട്ടുള്ളത് ഉണ്ടെങ്കിൽ